തൃശ്ശൂർ ജില്ലയിലെ ഗതാഗത സംവിധാനം എന്നത് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്തതാണ് കാൽനടയാത്രക്കാരുണ്ട് പിന്നെ കാറ് ബസ് ജീപ്പ് പക്ഷേ ഏറ്റവും അധികം ആൾക്കാരുപയോഗിക്കുന്ന പ്രാദേശികമായൊരു ഗതാഗത സംവിധാനമെന്നത് ഓട്ടോ തന്നെയാണ് ഓട്ടോ റിക്ഷകൾ മൂന്ന് ചക്രമുള്ള ഓട്ടോ റിക്ഷകൾ കൂടുതലായും ലഭ്യമാണ് എന്നത് തന്നെയാണ് ഇതിൻ്റെ പ്രാധാന്യം അതായത് നമുക്ക് എപ്പം വിളിച്ചാലും നമ്മുടെ അടുത്ത് ഒരു ഓട്ടോ ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ് ത്രിശ്ശൂർക്കാരെ കൂടുതലും ഓട്ടോയിലേക്ക് ആകർഷിക്കുന്നത് പിന്നെ തുച്ഛമായ നിരക്കന്നൊന്നും പറയാനില്ല ബസ്സിൽ പോകുന്നതിനേക്കാളും കൂടുതൽ പൈസയാണ് ഓട്ടോക്ക് എന്നിരുന്നാൽ പോലും ലഭ്യത കണക്കിലാക്കിയാണ് ഓട്ടോയ്ക്ക് ഇത്ര ഏറെ പ്രചാരം വന്നത് പിന്നെ തൃശ്ശൂരിലെ ഒരുപാട് ഉൾഗ്രാമങ്ങളിലേക്കൊന്നും ഊബറെന്ന സംവിധാനം ഇതുവരെ എത്തിയിട്ടില്ല പക്ഷേ സിറ്റികളിലെല്ലാം തന്നെ ഊബർ ഇന്ന് സർവ്വ സാധാരണമായിരിക്കുന്നു ഇനി പെട്രോളിൻ്റെ വില കൂടുന്നതും കൂടുതലായിട്ടുള്ള മലിനമായ അന്തരീക്ഷവും കണക്കിലെടുത്ത് വലിയൊരു വിഭാഗം സൈക്കിളിലേക്ക് തൻ്റെ ഗതാഗതം മാറ്റിയിട്ടുണ്ട് അത് വളരെ പ്രശംസനീയം തന്നെയാണ് എന്നാലും അത് പൊതു ജനങ്ങളിലേക്ക് എത്രത്തോളം എത്തിയിട്ടുണ്ട് എന്നത് സംശയമാണ് ഇന്നും നമുക്കൊരു സ്ഥലം വരെ ഒരു ചെറിയ ദൂരം വരെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മളാദ്യം കണക്കിലാക്കുന്നത് ഓട്ടോ തന്നെയാണ് അതല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ബസ്സും പക്ഷേ ബസ് കാത്ത് നിൽക്കുക സമയത്തിനങ്ങോട്ട് എത്തുക എന്നതൊക്കെ ബസ്സിൻ്റെ ബുദ്ധിമുട്ടുകളാണ് എന്തായാലും തൃശൂര്കാർക്ക് ഗതാഗതത്തിന് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല ഒരു കൈ തട്ടി വിളിച്ചാൽ വരുന്നത് ഓട്ടോ സ്റ്റോപ്പിൽ പോയി നിന്നാൽ കിട്ടുന്ന ബസ് പിന്നെ സ്വന്തം വീടിന് മുൻപിൽ കിടക്കുന്ന കാറോ ബൈക്കോ എന്തും അതുകൊണ്ട് ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടുക എന്നത് തൃശ്ശൂർകാർക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല